അ ഞാന് തുന്നല് പഠിക്കാന് പോയിട്ടുണ്ട് നെയ്യാനും നെയ്ത്തെന്ന് പറഞ്ഞാല് നമ്മുടെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള പിന്നെ സാധനങ്ങള് നെയ്യാനും ഞാന് പഠിച്ചിട്ടുണ്ട് അപ്പോള് തുന്നലിന് പോയപ്പോള് എനിക്കുണ്ടായൊരനുഭവം എന്താണെന്നുവച്ചാല് ഞാനൊരു ദിവസം എല്ലാം കട്ടെയ്തു തയ്ക്കാന് വേണ്ടിയിട്ട് മെഷിനെ കയറിയിരുന്നു മിഷിൻ തൈച്ചു തുന്നി തുന്നിക്കൊണ്ടിരുന്നപ്പോള് പെട്ടെന്ന് കട്ടിയുള്ളൊരു ഭാഗത്തേക്ക് വന്നു സൂചി കയറി പടക്കോന്ന് ഒടിഞ്ഞുപോയി ഞാൻ ഞെട്ടിവിറച്ച് എനിക്കാകെപ്പാടെ എന്താ ചെയ്യേണ്ടേന്നറിയത്തില്ലായിരുന്നു അതാണ് എനിക്ക് അതെനിക്കിന്നും മറക്കാന് പറ്റാത്തൊരു സംഭവാണ് അതാണ് അതാണെനിക്കുള്ളൊരു ഒരു സംഭവം പിന്നെ ഞാനൊരു നെയ്യാ വേണ്ടി ബ്ലാ ബാഗ് നെയ്യാന് വേണ്ടി തുടങ്ങിയിട്ട് അത് അവസാനം അതിൻ്റെ ബെയ്സ് നെയ്തിട്ട് പിന്നെ ഞാനതിന് ചെയ്യാനായിട്ട് ഒരു വർഷം കാത്തിരിക്കേണ്ടി വന്നു കാരണം എനിക്ക് സമയം കിട്ടിയില്ല അതാണ് എനിക്കുള്ളൊരനുഭവം പിന്നേ എനിക്ക് പറയാനുള്ളതെന്നു വച്ചാലെനിക്ക് വയ്ക്കാനുള്ള നിർദ്ദേശമെന്നാന്നുവച്ചാല് നമ്മള്ക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങള് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കാര്യങ്ങള് ചെയ്യുക കോൺസെൻട്രേറ്റെയ്ത് കാര്യങ്ങള് ചെയ്യുക കോൺസെൻട്രേഷനാണ് ഏറ്റവും വലുത് പിന്നെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുണ്ടാകാതെ സൂക്ഷിക്കുക